ഹലോ ആ ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വരെ പോകാൻ വേണ്ടിയായിരുന്നു ഇപ്പം ഫ്രീ ആണോ ആ ഇന്ന് എൻ്റെ വീട് കൈനകരിയാണ് കുട്ടമങ്ങലം എവിടെയാണ് ഇപ്പം ഉള്ളത് ഇന്ന് ആ കുട്ടമങ്കലവാണ് കുട്ടമംഗലറിയാമോ ആ മുട്ടേപ്പാലം ആ പൊക്കമുള്ള ഒരു പാലമുണ്ടല്ലോ ആ ആ കയറി ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയിക്കഴിയുമ്പോൾ ദാ എൻ എസ് എസ് ജെട്ടിയുണ്ട് എൻ എസ് എസ് ജെട്ടിയിൽ നിന്ന് പിന്നെ മേയ്ൻ റോഡിലോട്ട് ഇറങ്ങണം മേയ്ൻ റോഡിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ആ അതുണ്ട് അതെ അതെ ആ ഗുരുമന്ദിരത്തിൻ്റെ അടുത്തയിട്ടാണ് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എത്ര നേരത്തിനുള്ളിൽ വരാൻ പറ്റും ഓക്കെ എനിക്ക് അത്യാവശ്യമാണ് വേറെ പിന്നെ അടുത്ത ഓട്ടത്തിനൊന്നും പോകരുത് എത്ര രൂപയാകും ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഞങ്ങൾ സാധാരണ ഇവിടെ വിളിക്കുന്നവർ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൊണ്ടു പോകുന്നത് ഉണ്ട് ഇന്ന് ആ ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അത് വഴിയൊന്ന് ആലപ്പുഴയ്ക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് ആ ആ ടൗണ് വരെ പോകണം അത് ഇപ്പം കുറച്ച് വേയ്റ്റ് ചെയ്യേണ്ടി വരും അത് ആ അര മുക്കാൽ മണിക്കൂർ വെയ്റ്റ് ചെയ്യണ്ടേ വാ ആ ആ വെയ്റ്റിങ് ചാർജോക്കെ നോ പ്രോബ്ലം ഉണ്ട് അല്ല ഈ ആശുപത്രിയിൽ കുറച്ച് സമയമെടുക്കുവേ ധൃതി വച്ചു വേറെ പോവത്തൊന്നും പോവത്തൊന്നുമില്ലല്ലോ അവിടെ കാണത്തില്ലേ ഇല്ല കൂടെ നിൽക്കുന്നില്ലേലും കുഴപ്പമില്ല കാരണം വച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടറേ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കണ്ടാൽ മതി അവിടെ വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നമുക്ക് ആലപ്പുഴയിലും പോയിട്ട് തിരിച്ചു വരാം ആ വണ്ടാനത്തു നിന്ന് പിന്നെ കുറച്ച് പിന്നെ തി രക്ക് കാണും അതു കൊണ്ട് വേറെ ഇപ്പോൾ ഉടനെ വേറെ ഓട്ടമൊന്നും പിടിച്ചിട്ടില്ലല്ലോ ആ വെയ്റ്റിങ് ചാർജ് എത്ര രൂപ വരും ഒരു മണിക്കൂറിന് അമ്പത് രൂപ വച്ചു ഓക്കെ നേരത്തെ എത്ര ഇരുന്നൂറ്റി അമ്പത് രൂപയല്ലേ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പതും പിന്നെ മണിക്കൂറിന് അനുസരിച്ചിട്ട് വെയ്റ്റിങ് ചാർജ് അമ്പത് രൂപ വരും പിന്നെ ആലപ്പുഴയ്ക്ക് ഓട്ടം ഓടുന്നതിന് പിന്നെ എക്സ്ട്രാ പൈസ വരുമായിരിക്കും അല്ലേ അത് ഇപ്പം പറയാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ ആ അവിടെ നിന്ന് തന്നെ സാധാരണ രീതിയിൽ തന്നെ ആവത്തുള്ളൂ ഓക്കെ സ്ഥലം മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഞാൻ ഒന്ന് കൂടി പറഞ്ഞു തരാം ആ ആ എൻ്റെ പേര് റോയി എന്നാണ് എൻ്റെ പേര് റോയി എന്നാണ് സ്ഥലം പറഞ്ഞത് മനസ്സിലായോ കൈനക്കരി ആ അതെ മുണ്ടക്കപ്പാലം മുണ്ടക്കപ്പാലം കയറരുത് പക്കിപ്പാലം കഴിഞ്ഞിട്ട് ആ പക്കിപ്പാലം കഴിഞ്ഞിട്ട് ആറ്റെറമ്പിൽ കൂടിയുള്ള വഴിയിൽ കൂടി വന്നു മുട്ടേൽപ്പാലം കയറി മുട്ടേപ്പാലത്തിൽ ഇറങ്ങി പിന്നേ മുന്നോട്ട് പോവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു എൻ എസ് എസ് ജെട്ടി എന്ന് പറഞ്ഞില്ലേ

എൻ എസ് എസ് ജെട്ടി പിന്നേ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പൾത്തേ ഞാൻ പറഞ്ഞിരുന്നല്ലോ മറ്റേ നെടുമുടി കുപ്പപ്പുറം റോഡ് ആ ആ ആ ആ റോഡിൽ കയറി ഇറങ്ങി വന്നു കഴിയുമ്പോഴുള്ള ഒരു ഗുരുമന്ദിരമുണ്ടല്ലോ ആ ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടം വരെ വരണം ഓക്കെ ആ ആ ഇപ്പം വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുക ആണോ ആ ശരി ആ ശരി ശരി ആ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പം മൊബൈലിൽ സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല അത്കൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത് ആ ശരി ആ എന്നാൽ ശരി ഞാൻ വേയ്റ്റ് ചെയ്യുവാണേ ഓക്കെ ബൈ ശരി ശരി ഓക്കെ